എന്നെക്കുറിച്ച് ഞാൻ പറയണമെങ്കിൽ എൻ്റെ പേര് കൃഷ്ണപ്രിയ എൻ്റെ വീട്ടിൽ ഞാൻ അച്ഛൻ അമ്മ അനിയനാണ് ഉള്ളത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എനിക്ക് ഇരുപത്തി നാല് വയസ്സായി ഞാൻ ഡിഗ്രി ചെയ്തത് ബി എസ് സി ഇലക്ട്രോണിക്സിലാണ് ഇപ്പോൾ ഒരു ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ എസ് എസ് സിയ്ക്ക് പഠിക്കുന്നു അതുപോലെ പി എസ് സി എഴുതുന്നു അതുപോലെത്തന്നെ എൻ്റെ ഹോബീസ് എന്നു പറയുന്നത് ഞാൻ പെയിൻറിംഗ് ചെയ്യും അതുപോലെത്തന്നെ ഡ്രോയിങ്ങും ചെയ്യും എനിക്ക് ബി എഫ് എ പഠിക്കാനാണ് താല്പര്യം പിന്നെ എൻ്റെ അംബീഷൻ എന്നു പറയുന്നത് ഒരു പോലീസ് ഓഫീസർ ആവണം എന്നാണ് അതിനു വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു